ആ ഹലോ ടീച്ചറേ പറ ആ അതെ അതെ ടീച്ചറേ പറഞ്ഞോ ആ അലൻ എൻ്റെ ക്ലാസിലാണ് ആ ഹാ ആ ഹാ ആ ഹാ ആ ആ ടീച്ചറേ അവന് എഴുതാനും ആ കുഴപ്പമില്ല പക്ഷേ അവന് എന്തോ ഒരു ഡിസെബിലിറ്റി ഉണ്ടോ നമുക്കൊരു ഡൗട്ട് ഉണ്ട് അവന് എഴുതാനും ഒക്കെ വെച്ചാലൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് ഇനി ഇപ്പം അതിൻ്റെ വല്ല കുഴപ്പം ഉണ്ടോ നമുക്ക് അവൻ്റെ പേരൻറ്സിനോട് ചോദിക്കാം എന്നൊക്കെ ഓർത്തിരിക്കുവാണ് പിന്നെ ആ ആ അക്ഷരങ്ങളൊക്കെ അവന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് പോവുവൊക്കെ ചെയ്യുന്നുണ്ട് അക്ഷരങ്ങളൊക്കെ എഴുതുമ്പം കുറച്ച് തടസ്സം നേരിടുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്

ആ ഹാ ഹാ ആണ് ആ അങ്ങനെയൊരു പ്രശ്നം ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ആ എഴുതാനൊക്കെ ശകലം താമസം ആണ് കൊച്ചിന് അപ്പോൾ അത് കാരണം അതിനൊന്ന് പേരൻറ്സിനോടൊന്ന് വിളിച്ച് ചോദിക്കാം എന്നൊക്കെ ഓർത്തിരിക്കുവായിരുന്നു ആ ഹാ ഹാ ആ ആ ആ ആ നിങ്ങളുടെ ക്ലാസിൽ ടീച്ചറിൻ്റെ ക്ലാസിൽ എങ്ങനെ ഉണ്ടായിരുന്നു അവൻ ആണോ ആ ഹാ ഹാ ആ എനിക്ക് അങ്ങനെ തോന്നി അവന് ഈ എഴുതാനൊക്കെ ഒരു ശകലം ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നുന്നു അതുകൊണ്ടാണ് ആ

ആ ഹാ അവരെ അമ്മയെ കാണുവാണെങ്കിലേ ഇങ്ങോട്ട് ഒന്ന് വിളിക്കാനോ അല്ലെങ്കിൽ ഇങ്ങോട്ട് സ്കൂളിലോട്ട് ഒന്ന് ഇറങ്ങാൻ പറ ആ നിങ്ങൾ കാണാറുള്ളതല്ലേ ഇടയ്ക്ക് അപ്പം അങ്ങനെ ആവുമ്പോൾ ആ ഒന്ന് സ്കൂളിലോട്ട് ഇറങ്ങാൻ പറ നമുക്ക് നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാമല്ലോ എന്തെങ്കിലും കുഴപ്പം ഉണ്ടോ ഒക്കെ ഒന്ന് ചോദിക്കാമല്ലോ ആ ആൾ വേറെ കുഴപ്പം ഒന്നും ഇല്ല ഭയങ്കര ആക്റ്റീവ് ഒക്കെയാണ് എല്ലാ കാര്യത്തിനും നല്ല ആക്റ്റീവ് ഒക്കെയാണ് പക്ഷേ ഈ ആ എഴുതാൻ വരുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് ആ ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുന്നുണ്ട് കാണിക്കുന്നുണ്ടായിട്ട് തോന്നുന്നു ആ അപ്പോൾ അതൊന്ന് തിരക്കാം എന്ന് ഓർത്തിരിക്കുവാണ് ആ ഹാ ആ എന്നാൽ പിന്നെ ആ അങ്ങനെ പറ എന്നാൽ ആ ആ ശരി ഓക്കെ എന്നാൽ ഓക്കെ ആ